ഹലോ ഡോക്ടറാണോ ഞാൻ അവിടെ ആ ആ ഗവൺമെൻറ്റ് ഹോസ്പിറ്റലിൽ ഉള്ളൊരു സജേഷ് ഡോക്ടറെ ആണ് കാണിച്ചുകൊണ്ടിരുന്നത് നെഞ്ച് വേദനയ്ക്കായിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത് അപ്പം ഇപ്പം ഡോക്ടർ ട്രാൻസ്ഫർ ആയി അപ്പം അതാണ് ഞാൻ ഇപ്പം ഡോക്ടറെ വിളിച്ചത്

വേദന അങ്ങനെ അധികമായിട്ടൊന്നും ഇല്ല കുറേ മാറ്റമുണ്ട് എനിക്കാദ്യം ഈ അസിഡിറ്റീൻ്റെ പ്രശ്നം ആയിരുന്നു അപ്പം ഈ നെഞ്ച് വേദന ഗ്യാസിൻ്റെ പ്രോബ്ലം ആയിട്ട് നെഞ്ച് വേദന ആയിട്ട് എങ്ങനെ ആ ഇപ്പം കഴിക്കുന്നുണ്ട് ഗ്യാസിൻ്റെ ഒര് ടാബ്ലെറ്റ് മാത്രമേ കഴിക്കുന്നുള്ളൂ പാൻറ്റോപ്പ് അപ്പം ആ അത് മാത്രമേ ഇപ്പം കഴിക്കുന്നുള്ളൂ അപ്പം അതിന് മുന്നേ ഭയങ്കര നെഞ്ച് വേദന കാര്യങ്ങളൊക്കെ ആയിട്ടായിരുന്നു ഡോക്ടറെ കാണിച്ചത് ആ ഫർസ്റ്റ് ടൈം കാണിക്കുന്നത് ഇല്ല ഇ സി ജി യിലൊന്നും കുഴപ്പമില്ല നമ്മൾ കൊണ്ടുപോയ അവിടെ തന്നെ അവർ ഇ സി ജി ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു ഇ സി ജി യിലൊന്നും ഇല്ല സീനൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ പിന്നേയും ഇപ്പം ഞാൻ കുറച്ച് മരുന്ന് നിർത്തിയിട്ടുണ്ടായിന്നു ഡോക്ടർ പെട്ടെന്ന് പോയപ്പം പിന്നെ ഞാൻ കാണിച്ചില്ലായിരുന്നു അപ്പം മെഡിസിൻ നിർത്തിയപ്പോൾ എനിക്ക് പിന്നെ ആ ഓക്കെ ഓക്കെ അപ്പം ആ ആയിക്കോട്ടെ അപ്പം ഇപ്പോൾ നോക്കുമ്പോൾ ആ ഇപ്പം നമ്മൾ വീണ്ടും ചെറിയൊരു നെഞ്ച് വേദന പോലെ അപ്പം ചോറു അതായത് രാത്രിയൊക്ക കുറച്ച് ലേറ്റായിട്ടൊക്കെ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ പിന്നെ നെഞ്ച് വേദന ഒക്കെ ആയിട്ട് കിടക്കാൻ പറ്റില്ല അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ ആണ് ആ ആ എണ്ണ കടികളൊക്ക അന്ന് ഇങ്ങനെ ഒന്ന് വന്നതിൽ പിന്നെ അങ്ങനെ കഴിക്കാറില്ല ഇപ്പഴാണ് ഇപ്പഴാണ് കുറച്ച് ഇപ്പം ഒരു ആ കറക്റ്റ് അത് തന്നെ ഇടയ്ക്ക് ടൈമിൽ കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പം ഇത് പിന്നെയും വന്നു അതാണ് അപ്പം ഒന്ന് ഡോക്ടറേ ഒന്ന് വിളിക്കാം എന്ന് വിചാരിച്ചിട്ട് വിളിച്ചതായിരുന്നു ഡോക്ടർ എത്ര മണി തൊട്ട് എത്ര മണി വരെയാണ് ഉണ്ടാകുക ആ അത്ര ഉണ്ടാകും അല്ലെ ആ ഇവനിങ്ങ് ഹോസ്പിറ്റലിൽ ഇല്ലാല്ലെ ആ അപ്പം ആ പത്ത് മണി തൊട്ട് ഒരു മണി വരെ ആണോ ആ അങ്ങനെയാണെങ്കിൽ ഞാൻ നാളെ ആണല്ലേ അപ്പം ഞാൻ എന്താണ് ചെയ്യുക നാളെയോ മറ്റെന്നാളോ പേപ്പർസ് ഒക്കെ എടുത്തിട്ട് വന്ന് കാണിക്കാം തിങ്കൾ തൊട്ട് വെള്ളി വരെ അല്ലേ ഉള്ളു ആ ഓക്കെ എന്നാൽ ആ